എൻ്റെ പേര് ഡെന്നീസ്ന്നാണ് ഞാൻ നിങ്ങളുടെ പുതിയ അയൽവക്കക്കാരനാണ് എൻ്റെ വീട് കൈന്നീരിലായിരുന്നു ഞാനിപ്പോൾ ചെന്നൈയിലോട്ട് ഇങ്ങോട്ട് മാറിയതാണ് എനിക്ക് ജോലി സംബന്ധമായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബാക്കിയുള്ള ലൈഫ് എൻ്റെ പേരെൻസൊക്കെ സിസ്റ്റേസിൻറ്റൂടെ പുറത്താണ് അപ്പോൾ എൻ്റെ ലൈഫ് ബാക്കി ലൈഫ് ഞാനീ ചെന്നൈ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്തെന്ന്വെച്ചാൽ അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കാനായിട്ട് ഇവിടെത്തഡ്രസ്സാണ് എനിക്ക് കൊടുക്കേണ്ടത് അപ്പം ഇപ്പം ഞാൻ പുതിയ വന്നോണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പെനിക്കറിയേണ്ടത് എന്താന്ന്വെച്ചാൽ ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസ് എവിടെയാണ് പിന്നെൻ്റഡ്രസ്സ് മാറ്റണം അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെന്നാണ് എനിക്ക് താല്പര്യമുണ്ട് അപ്പം നിങ്ങളുടെ ഇവിടത്തെ അഡ്രസ്സ് പിൻകോഡുമൊക്കെ എനിക്കൊന്നു പറയുവായിരുന്നെ പിന്നെ ഡോക്കുമെൻറ്റ്സൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടന്ന് ചെയ്യാമായിരുന്നു നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കിത് പറ്റില്ല